ഹലോ ലാല് ക്രിയേഷന്സ് അല്ലേ എന്റെ പേര് മധു ഞാൻ കഴിഞ്ഞ ദിവസം സാറേ എന്റെ ഏറ്റോം അടുത്ത സുഹൃത്തുമായിന് ഒരു സപ്പ്രൈസായിട്ട് അദ്ദേഹത്തിന്റെ വെഡ്ഡിങ് ആനുവേസറിയിലെ പിക്ച്ചറിന് വേണ്ടീട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അദ്ദേഹം ആ ദിവസം വേറെയൊരു ഏതോ പ്രോഗ്രാമായിട്ട് എന്ഗേജായി പോയി അതുകൊണ്ട് അതിനകത്തിൽ പങ്കെടുക്കുവാൻ ആയിട്ട് സാധിക്കത്തില്ല ദയവായിട്ട് അതൊന്ന് ടിക്കറ്റ് ക്യാന്സല് ചെയ്ത് തരണം ബുദ്ധിമുട്ടുകൾ ക്ഷമിക്കണം എന്ന് പ്രത്യേകം താല്പ്പര്യപ്പെടുന്നു ഓക്കെ